നമ്മള പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഒരു അര ഏക്കറോളം ഉണ്ടാകും ഏകദേശം ഒരു അര ഏക്കറോളം ഉണ്ടാകും അതിൽ എല്ലാം ഉണ്ട് എല്ലാ സൈസ് പൂക്കളും ഉണ്ട് മൽ മല്ലികയുണ്ട് ജമന്തിയുണ്ട് എല്ലാ സൈസ് പൂക്കളും ഉണ്ട് പക്ഷെ അവിടെ കൊതുക് അങ്ങനെ അത്ര കൊതുക്ക് കിടനാശിനി അടിക്കുന്നുണ്ട് നമ്മൾ എന്താ ഒരു പാറ്റാ എച്ചി തിന്നുന്നതിന് പാറ്റാ പ്രശ്നമില്ല കൊതുകും ഉണ്ടാന്ന് കുറച്ച് മല്ലികപ്പൂ ഉണ്ടാകുന്നു ദോഷമില്ലാത്ത മാതിരിയൊക്കെ പോകുന്നുണ്ട് ഒപ്പിക്കാം എലി ശല്യം മറ്റേ ഈ പുറമേ നിന്ന് ഒരു ഒരു ഇത് വരുന്നതാണ് പ്രശ്നമാക്കുന്നത് കന്നുകാലി ഇപ്പം വലിയ പ്രശ്നമില്ല കന്നുകാലി അങ്ങനെ തീരേ സമയത്ത് വന്ന് തിന്ന് തിന്ന് അല്ല എല്ലാ സമയത്തും കന്നുകാലിയുടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം വെട്ടി ക്ലീൻ ആക്കി പിന്നെ പന്നീരെ പ്രശ്നം ഉണ്ട് പന്നി വന്നാലും വെടുപ്പാക്കി പോകത്തില്ല നശിപ്പിച്ച് പോകും ജമന്തി ഇഷ്ടംപോലെയുണ്ട് മല്ലിക ആ ഉണ്ട് അതൊന്നും പ്രശ്നമില്ല നന്നായിട്ട് പോകുന്നുണ്ട് നെരു ഒരു സീസണിൽ മാത്രം പിന്നെ വെള്ളമടിച്ചു കൊടുക്കണം അതിന് ഒരു കൃത്യനിഷ്ഠ വേണം അത് ഇല്ലെങ്കിൽ കാര്യം പോക്ക് രാ രാവിലെ അടി അതിരാവിലെ അടിക്കണം അല്ലെങ്കിൽ വൈ ഒരു വൈകുന്നേരം അടിച്ചാലും മതി വൈകുന്നേരം ഒരു ആ അഞ്ച് മണി ആറ് മണി ആകണം ഇരുട്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് വെള്ളം സ്പ്രേ അടിച്ചു കൊടുത്താൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ആര ഏക്കർ ഉള്ളതിൽ നടത്തിയിട്ട് ദോഷമില്ലാത്ത മാതിരിയൊക്കെ കിട്ടിയിരുന്ന് പൂ ഒന്നുമില്ല കടയിൽ കൊടുത്തു അത് കംപ്ലീറ്റ് അങ്ങനെ തന്നെ മല്ലിയും എല്ലാ സൈസ്സും ഉണ്ട് പക്ഷെ എല്ലാ സൈസ്സും വളർത്തുന്നുണ്ട് മുല്ലയും ജമന്തി ഇതെല്ലാം ഇപ്പം കടയിൽ എടുക്കുന്നുണ്ട് കടയിൽ എടുക്കുന്ന എല്ലാം കടയിൽ കൊടുക്കും പിന്നെ കുറച്ചെല്ലാം അങ്ങനെ അവിടെ തന്നെ ഉണ്ടാകുന്നു അവിടെ വെള്ളം വെള്ളമൊഴിക്കും വെള്ളം എല്ലാ സമയത്തും നമ്മൾ ഒഴിച്ചു കൊണ്ട് ഇരിക്കുകയാണ് രാവിലെയും വൈകീട്ടും വെള്ളം ഒഴിക്കും ഒന്ന് ഇത് ഉപദ്രവം പാറ്റയുടെയും കൊതുകിൻ്റെയും ഉപദ്രവം ഉണ്ടാകുമെങ്കിലേ നെറ്റ് അതിൻ്റെ മുകളിലേക്ക് ഇതാക്കിയിട്ട് ഒരു പക്ഷി വറി ഇതാക്കുന്ന് വന്നിട്ട് ഇരിക്കുന്നു മുകളിൽ അതിന് നെറ്റ് ഇട്ടു കൊടുക്കുന്നു മുകളിൽ കാക്കയും പക്ഷിയെല്ലാം വന്നിട്ട് ഇരിക്കുന്നതിന് മുകളിൽ നിന്ന് അങ്ങനെ നെറ്റ് ഇട്ടിട്ട് മുകളിൽ നിന്ന് താഴെ ഇറങ്ങുന്നില്ല അങ്ങനത്തെ നല്ല കൊണോണ്ട് നെറ്റിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് ചില ആൾക്കാർ പൂവിന് ചോദിച്ച് വരുന്നുണ്ട് ആ ചോദിച്ച് വന്നാൽ അടുത്തൊക്കെ തന്നെ അവർ കൊടുക്കും ഇല്ലെങ്കിൽ കടയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം അത് പറിച്ചിട്ട് പോയിട്ട് ഒരു സീസൺ ആണ് പിന്നെ ആ സീസണിൽ ഇല്ലേൽ പിന്നെ അടുത്തതിൽ നോക്കും അങ്ങനെ തുടർച്ചയായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ്

വേറെന്ന് അത് ഭയങ്കര വെയിൽ ഇതാകണം ചുറ്റും ചുറ്റും പൂവിനൊരു ചുറ്റും മതിൽ കെട്ടണം മതിൽ കെട്ടിയില്ലെങ്കിൽ പിന്നെ കാലിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കന്നുകാലിയുടെ ഉപദ്രവം ഉണ്ട് പന്നി എങ്ങനെ ആയാലും വരും കന്നുകാലിയുടെ ഉപദ്രവം ഉണ്ടാകും അതൊരു വന്നുകഴിഞ്ഞാലും ഇത് മാതിരി പന്നി കയറിയ മാതിരി തന്നെ ചവിട്ടി നശിപ്പിച്ചിട്ട് പോകും അങ്ങനെയുണ്ട് ഒരു പ്രശ്നം പിന്നെ നമ്മൾ അതിനെ എത്ര ശ്രദ്ധിച്ച് വളർത്തു കണ്ട് നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകും എന്നാൽ അതുമാതിരി തന്നെ

പിന്നെ കൊതു കൊതുക് നാശിനി അടിപ്പിച്ചിട്ട് അടിച്ചിട്ട് അപ്പം തന്നെ അത് ഇല്ലാതാക്കുന്നു അതൊരു പതിക്കാനും അതി നും ഒരു പണിക്ക് ആളെവെയ്ക്കാൻ പാടില്ല സ്വന്തം നോക്കണം പണിക്ക് ആളെ വെച്ച് അത് ഒരു ശരി ആവില്ല ഇത് ഈ പൂന്തോട്ടത്തിനൊന്നും പണിക്കാളെ വെച്ച് അത് നട അത് ഇതാകില്ല അത് ഇങ്ങനൊരു അവസരത്തിനൊത്ത് ചെയ്യാമെന്നേ ഉള്ളു നമ്മൾ സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ലാഭം ലാഭകരമായൊരു പണി തൊഴിലാകും വീണ്ടും വീണ്ടും ഇങ്ങനെ മാറി മാറി ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് ഇതാക്കി കഴിഞ്ഞ് അത് കൂട്ട് ഇത്ര നമ്മൾ വേറെ ഒരു എടുക്കലേനു ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്ര കൊണമാണ് നമുക്ക് ഇത് കഴിയുമ്പോഴേക്കും അടുത്തത് കിട്ടുമല്ലോ ദിവസം തൊഴിലുമാകുമല്ലോ നമുക്ക് സ്ഥിരം വേറെ പണി അന്വേഷിക്കേണ്ട ഇത് തന്നെ മതി പൂന്തോട്ടം തന്നെ മതി നമുക്ക് എപ്പോഴും ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പം ഒന്ന് അങ്ങനെ അത് നല്ല ഇതാണ് സൂക്ഷി ഇതാകണം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചത്ര നമുക്ക് വരുമാനം കിട്ടും അങ്ങനെ സ്ഥിരമായിട്ട് നമ്മ കൊടുക്കുന്നു പറയുമ്പം പാർട്ടി നമ്മള അടുത്തേക്ക് തന്നെ വരും ഇത് അന്വേഷിച്ചിട്ട് എവിടെ നിന്നാണ് ഇത് എങ്ങനെയാണ് നല്ല സൈസ് പൂവാണ് നല്ല ഒന്നാം നമ്പർ പൂവാന്നെല്ലാം പറഞ്ഞിട്ട് ആൾക്കാർ വരും ഒരാൾ വേറൊരാളോട് പറയും അപ്പം ആൾക്കാർ വീട്ടിലേക്ക് തന്നെ തേടിയിട്ട് വരും നമ്മൾ കൃഷി സ്ഥലത്തേക്ക് തന്നെ വരും നമ്മളെ അന്വേഷിച്ചിട്ട് അപ്പം നമുക്ക് കൊടുക്കാനും എളുപ്പമാണ് അവിടെ തന്നെ പറിച്ചിട്ട് അവർ തന്നെ കൊണ്ട് പൊയ്ക്കോ വാഹന വാഹന സൗകര്യമാക്കിയിട്ടെ വരൂ വന്നാ അവര് തന്നെ അവര് എടുത്തിട്ട് പൊയ്ക്കോളും നമുക്ക് അതിനു വലിയ കഷ്ടപ്പാട് ഇല്ല നമുക്ക് കൃഷി ചെയ്യുന്ന കഷ്ടപ്പാടേ ഉള്ളൂ വേറെ ഇത് കൊണ്ടുപോയി കൊണ്ടുക്കേണ്ട എടുത്തിട്ടു ബാക്കിൽ ഓടേണ്ട അവര് വന്ന് വാങ്ങിക്കോളും എല്ലാ സ്ഥലത്തും പൂവ് എല്ലായിരിക്കും അത്യാവശ്യം അല്ലെ എല്ലാ ദിക്കിലും പൂവിൻ്റെ ആവശ്യമാണ് പ്രത്യേകിച്ച് കല്യാണ സീസണിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ ഉത്സവ സീസൺ അതുപോലത്തെ സീസൺ വരുന്നുണ്ടല്ലോ അപ്പം എല്ലാ ആൾക്കാർ തേടി വരും ഇത് എവിടെ നിന്ന് എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് മാറി വരുന്നേ എല്ലാം കാലം തെറ്റ് ശരി തെറ്റൽ തെറ്റല്ല റെക്കോഡ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഒരു കാര്യം പറയട്ടെ ഇങ്ങോട്ടു വാ